കുറച്ചു വർഷങ്ങൾക്ക് മുൻപുള്ള പഴയ മൊബൈലുകളും നിലവിലുള്ള സ്മാർട്ട് ഫോണുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നു വച്ചിട്ടുണ്ടെങ്കിൽ പഴയ മൊബൈലുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മളിപ്പോൾ എല്ലാവരും പറയില്ലേ കട്ടപ്പെട്ടി അങ്ങനെ ആ കട്ടപ്പെട്ടിയാണ് അതായത് സാധാരണ എന്താ പറയുക നമുക്കൊന്ന് കോള് ചെയ്യാനും ജസ്റ്റ് തിരിച്ചു കോള് വരുമ്പോൾ എടുക്കാനും മെസ്സേജ് ചെയ്യാനും പിന്നെ ചെറിയ ചെറിയ ഗെയിമുകൾ അങ്ങനെയൊക്കെയുണ്ടാവും സാധാരണ ഒരു ഫോൺ സാധാരണമായിട്ടുള്ള ഫോണ് അതിലൊരു വീഡിയോ ക്യാമറ അങ്ങനെ ഒന്നൂല്ല പിന്നെ കുറച്ചു കഴിയുമ്പം ആ കട്ടപ്പെട്ടിയിൽത്തന്നെ ചെറിയൊരു ക്യാമറയുള്ളൊരു സംഭവം വന്നു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ സ്മാർട്ട് ഫോണുകളുടെ കാലമായത് പിന്നെ അതിലിതായത് വീഡിയോ കാണാം നമുക്ക് നെറ്റ് കയറ്റാം അതായത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി വന്നു തുടങ്ങിയെന്നു വച്ചാൽ ഇപ്പോൾ അത് സജീവമാണ് അപ്പം അതെന്താണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ്വർക്ക് കണക്ഷന്റെ പ്രവർത്തനമെന്നു വച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹൈ ഹൈ ആയിട്ടാണ് നല്ല റേഞ്ചുള്ള നെറ്റ് വർക്കുകളാണിപ്പോൾ ഫൈവ് ജി കാലഘട്ടമായി സിമ്മ് ഏതാ ഉപയോഗിക്കണതെന്നു വച്ചിട്ടുണ്ടെങ്കിൽ സിമ്മ് മൊബൈൽ അതായത് സിമ്മേതാ ഉപയോഗിക്കണതെന്നു വച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആദ്യമൊക്കെ ഐഡിയ ആയിരുന്നു ഇപ്പോൾ അതായത് ജിയോ സിമ്മാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കണത് ഡാറ്റ പാക്കുകൾക്കായിട്ട് മാക്സിമം ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാസം ഞാൻ മുടക്കാറുണ്ട്